ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കാലാനുസൃതമായി വളർന്നുവന്നതും വലിയ മാറ്റങ്ങൾ ചെയ്തതുമാണ് എന്നാൽ അതിൻ്റെ പുറകെ ചില വിമർശനങ്ങളും കുറവുകളും നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളില് വിദ്യാഭ്യാസം ഇപ്പോഴും വിവിധ വെല്ലുവിളികൾ നേരിടുകയാണ് നല്ല കാര്യങ്ങൾ സർക്കാർ നയങ്ങളിലൂടെ സ്കൂളുകളുടെ എണ്ണം വർദ്ധിച്ചു സൗജന്യ വിദ്യാഭ്യാസം വിഭവങ്ങൾ ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയവ കൊണ്ടുവന്നു ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്കോളർഷിപ്പ് എൻട്രൻസ് സിസ്റ്റം തുടങ്ങിയ നിലവില് വന്നു പക്ഷേ അതിന് പുറമെ പല പ്രശ്നങ്ങളും ഇന്ന് ഈ കേരള വിദ്യാഭ്യാസത്തിനുണ്ട് അതില്പ്പെട്ടതാണ് ഗ്രാമപ്രദേശങ്ങളില് അധ്യാപകരുടെ കുറവ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കുറഞ്ഞ കെട്ടിടങ്ങള് ശുദ്ധജലം വൈദ്യുതി ടോയ്ലറ്റ് അങ്ങനെ പ്രായോഗിക പഠനത്തിൻ്റെ കുറവ് കൂടുതൽ തിയറി അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഗുണമേന്മയില്ലാത്ത വിദ്യാഭ്യാസമുണ്ടാകുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസ ഇത് വളരെ ബാധിക്കുന്നു അതിന് പുറമേ തെറ്റായ മൂല്യങ്ങളുള്ള പഠിപ്പും സിലബസുകള് അതൊക്കെ ഉണ്ടാകുന്ന മൂല്യം കുറഞ്ഞ സിലബസുകള് വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ടെക്നോളജി വർദ്ധിച്ചുവരുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ ടെക്നോളജിയും എ ഐയും ഡിജിറ്റലുമൊക്കെ നമ്മൾ കടുത്തിക്കയറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിയുടെ കുറവ് ഇൻറർനെറ്റ് ലഭ്യതക്കുറവ് അത് വിദ്യാഭ്യാസത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സർക്കാർ എടുക്കേണ്ട പ്രധാന നടപടികൾ നമ്മൾ നോക്കുകയാണെങ്കില് അധ്യാപകരുടെ ഡെപ്ലോയ്മെൻറ് പരിശീലനമൊക്കെ നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ട് അംഗീകൃത അധ്യാപകരെ കൃത്യമായി നിയമിക്കുക അധ്യാപകര്ക്ക് പുതിയ പാഠ്യവിഷയങ്ങളും ടെക്നോളജി പരിശീലനവും നൽകുക പിന്നെ രണ്ടാമത് അടിസ്ഥാനസൗകര്യങ്ങള് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ശുദ്ധജലവും ശൗചാലയം സുരക്ഷിത പഠന ഒരുക്കുക ലൈബ്രറിയിൽ കുറേ ബുക്കുകൾ കൊണ്ടുവരണം കുറേ റിസർച്ചിനുള്ള അവസരങ്ങൾ കൊടുക്കണം ലാബുകൾ വേണം ഡിജിറ്റൽ ക്ലാസ്റൂമുകൾ സ്ഥാപിക്കണം ഇതിലൂടെയൊക്കെ എന്താകും ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസത്തെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഡിജിറ്റൽ സൗകര്യങ്ങള് നമ്മള് പ്രാദേശികമായിട്ട് ഗ്രാമപ്രദേശങ്ങളില് നമ്മള് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ സ്മാർട്ട് ടി വി ടാബ്ലെറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് ഉറപ്പാക്കണം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം കുട്ടികൾക്ക് ഓരോരുത്തര്ക്കും ഓരോ ടാബ്ലറ്റ് കൊടുക്കണം ഫോണുകൾ കൊടുക്കണം പഠന ആപ്പുകള് ഓൺലൈൻ ക്ലാസ്സുകളെ സംബന്ധിച്ച് കുട്ടികൾക്കും അധ്യാപകര്ക്കും പരിശീലനം നൽകുകയൊക്കെ വേണം പിന്നെ ഭാഷാപരമായിട്ട് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക വിദ്യാർത്ഥികൾക്ക് സ്ലോലി ഇംഗ്ലീഷ് ആൻഡ് അദർ ലാംഗ്വേജിലുള്ള എക്സ്പോഷര് നല്കുക കമ്മ്യൂണിക്കേഷൻ സ്കില് വിദ്യാർത്ഥികൾക്ക് അധികരിപ്പിച്ച് കൊടുക്കുക കാരണം ഇന്നത്തെക്കാലത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാതെ ഒരു കുട്ടിക്കും ഒരാൾക്കും വളരാനോ കൂടുതൽ നല്ല നല്ല ജോലികൾ നേടാനോ സാധിക്കുകയില്ല അപ്പോള് നമ്മള് ഈ പഠിക്കുന്ന ഭാഷയിൽ വളരെയധികം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള അധ്യാപകരെ പഠിപ്പിച്ച് അധ്യാപകരായിട്ട് നിയമിക്കുകയും കുട്ടികൾക്കത് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള അവസരങ്ങൾ കൊടുക്കണം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വിദ്യാഭ്യാസം നമുക്കിവിടെ അധികം പ്രാക്ടിക്കലായി കൊണ്ടുവരിക പണ്ടത്തെ പോലെ സിലബസ് വായിക്കുക പഠിക്കുക എക്സാം എഴുതുക എന്നതിന് പകരം പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കൊണ്ടുവന്നാൽ തന്നെ അത് നമുക്ക് വളരെ കുട്ടികൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെയധികം മെച്ചപ്പെടുത്തുന്നതാണ് സ്കോളർഷിപ്പുകൾ കൊണ്ടുവരേണ്ടതാണ്